ആ ജെയ് മോനല്ലേ വെരി ഗുഡ് മോര്ണിംഗ് ജയ്മോൻ വെൽക്കം ടു കൊ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആ ഓക്കെ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങള്ക്ക് മനസ്സിലായല്ലോ എന്ത് ജോബിലേക്കാണ് സെയിൽസ് മാനേജേരായിട്ടാണ് ഇപ്പോള് നിങ്ങള്ക്ക് ജോബ് ഓഫർ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്യാരക്ടറും ഇതിന് തീർച്ചയായിട്ടും വളരെ അനുകൂലമാണ് അതുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് നമ്മള് നോ സെയിൽസ് മാനേജരായിട്ട് ചങ്ങനാശ്ശേരിയില് ആക്കിയിരിക്കുന്നത് ഓക്കെ നിങ്ങള്ക്ക് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റിവ്സ് ത്രീ മന്ത്സ് റിവ്യൂ ഉണ്ട് എവെരി ത്രീ മന്ത്സ് യു വിൽ ഗെറ്റ് എ റിവ്യൂ ആ റിവ്യൂ ഉണ്ടാകും അപ്പോള് റിവ്യൂവില് നിങ്ങളുടെ പെർഫോമൻസ് ഇതാണെങ്കില് നിങ്ങള്ക്ക് പിന്നെ സീ കട്ട് ഓഫ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻ്റെജ് നിങ്ങള് അച്ചീവ് ചെയ്യുകയാണെങ്കില് നിങ്ങള്ക്ക് വീണ്ടും സിക്സ് മന്ത്സ്സൂടെ നിങ്ങള്ക്ക് വീണ്ടും ആ റിവ്യൂവിൽ തരും അപ്പോള് അനഥർ സിക്സ് അതായത് ഒരു വർഷത്തിനുള്ള നിങ്ങളുടെ ഫസ്റ്റ് ടാർജെറ്റില് നിങ്ങള് സെവെൻറ്റി പെർസെൻറ്റ് അച്ചിവ് ചെയ്യുവാണെങ്കിൽ നിങ്ങള്ക്ക് കൺഫോർമേഷന് സാധ്യതയുണ്ട് ആ ഓക്കെ നിങ്ങള് നിങ്ങൾക്ക് തന്ന ഡേ ആ ഇതിപ്പോള് അതിനുവേണ്ടിയിട്ട് നിങ്ങള്ക്ക് സെയിൽസ് കിറ്റുകളും മറ്റു കിറ്റ് ഇൻഫർമേഷൻസെല്ലാം നിങ്ങള്ക്ക് നമ്മുടെ ആപ്പ് വഴി നിങ്ങള്ക്ക് തരുന്നതാണ് അത് ഓൻ ദെ ജോബ് ട്രെയിനിങ് ഒരു ടെൻ ഡേയ്സ് ഉണ്ടാകും ഓൻ ദെ ജോബ് ട്രെയിനിങ് അത് നിങ്ങൾ അവൈലബിളായിട്ട് കൊടുക്കുക അപ്പോള് ഓൾ ദെ ബെസ്റ്റ് നിങ്ങൾക്കിനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ ചോദിക്കാം ഓക്കെ ജെയ്മോൻ വെരി ഗുഡ് നിങ്ങൾക്ക് അറിയാമാത്ത മേഖലയൊന്നുമല്ല നിങ്ങൾക്ക് സെയിൽസ് ഫീൽഡിലോട്ട് താൽപര്യം ഉള്ളതുകൊണ്ടാണ് നമ്മള് സെയിൽസ് ആൻഡ് ഓക്കെ തീർച്ചയായിട്ടും അപ്പോള് നിങ്ങൾ ഇത് നിങ്ങള്ക്ക് ആദ്യത്തെ ഒരു മൂന്ന് കോട്ടറില് നിങ്ങൾക്ക് ട്വൻറ്റി അക്കൗണ്ട്സാണ് ഇൻ ടു ട്വൻറ്റി സേവിങ്സ് അക്കൗണ്ട്സ് സേവിങ്സ് അക്കൗണ്ടാണ് കസ്റ്റമറെ മീറ്റ് ചെയ്യുക ട്വൻറ്റി സേവിങ്സ് അക്കൗണ്ടാണ് സോഴ്സ് ചെയ്യേണ്ടത് മൂന്ന് കോട്ടർ മനസിലായ സോ ഐ മീൻ മൂന്ന് ഫസ്റ്റ് ക്വാർട്ടറില് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത് അക്കൗണ്ട്

ആ അയ്യോ ഓ ഓക്കെ അപ്പോള് നിങ്ങൾക്ക് മൂന്നുമാസം കൊണ്ട് ട്വൻറ്റി അക്കൗണ്ട്സ് സോഴ്സ് ചെയ്താല്മതി വേറെ ഒന്നുമില്ല ഫസ്റ്റ് കിട്ടുന്നെൻ്റെ സേവ് ബേസിക് സേവിങ്സ് അക്കൗണ്ട് മാത്രമുള്ളു അഡീഷണൽ പ്രോഡക്റ്റ് ഒന്നുമില്ല നിങ്ങൾ കസ്റ്റമറെ ഒരു ടെൻ കസ്റ്റമറെ പെർ ഡേ കാ മീറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കില് സീ നിങ്ങളെ റിപ്പോർട്ടിങ് മാനേജരുണ്ട് ആ റിപ്പോർട്ടിങ് മാനേജർക്ക് എല്ലാ ഡീറ്റെയിൽസും ഡെയിലി അയച്ചുകൊടുക്കുക നിങ്ങൾക്ക് കസ്റ്റമർ ചോദിക്കുന്ന സംശയങ്ങളെല്ലാം നിങ്ങള്ക്ക് ഈവനിംഗ് നിങ്ങൾക്ക് ഡിസ്കഷനുണ്ടാകും അപ്പോള് ആ ഈ മാനേജരുമായിട്ട് നിങ്ങള് ഡിസ്കസ് ചെയ്യുക എന്തൊക്കെ പോയിൻസാണ് കസ്റ്റമറിന് അറിയേണ്ടത് മാർക്കറ്റിലായിട്ടുള്ള എന്തെങ്കിലും പുതിയ പ്രോഡക്ടസെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എല്ലാം എല്ലാം ചോദിക്കുക ബാക്കി ഓൺ ദ ജോബ് ട്രെയിനിങ്ങില് ഓൺ ദ ജോബ് ട്രെയിനിങ് നിങ്ങള്ക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളത് റീഡ് ചെയ്യുക ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ആ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജെയ്മോൻ ഗോഡ് ബ്ലസ് യു താങ്ക്യൂ